ഹലോ ആ ഞാനേ ഷെനിയായിരുന്നു നമുക്കൊരു ടൂറ് പോവണമല്ലോ വേണിച്ചേട്ടാ മ് മൂന്നാറിന് പോകാം എന്നാൽ ഓട്ടോറിക്ഷക്ക് ഞാനും ഉണ്ട് എൻ്റെ ഒരു കൂട്ടുകാരിയും ഉണ്ട് മ് നമുക്ക് അങ്ങോട്ട് പോവുന്നതിന് എത്ര രൂപയാ ആവുന്നത് ആ ഒരു ദിവസത്ത ട്രിപ്പ്

നമുക്ക് അതിനിടയ്ക്ക് മൂന്നാറിന് ഇടക്ക് എങ്ങോട്ടാ അവിടെയാ പ്രദേശത്തൊക്കെ പോകാം ആ ആ മറയൂരും കാന്തല്ലൂരും അവിടെയൊക്കെ ആകുമ്പോൾ ഒത്തിരി കാണാനും കേൾക്കാനും ഒക്കെ ഉണ്ടല്ലോ നല്ല കാലാവസ്ഥയല്ലേ

നമുക്ക് ഇരുപതാം തീയതി പോകാം ഇരുപതാം തീയതി

ആ വൈകിട്ടത്തേന് തിരിച്ച് വരണം ആ ഒരു എട്ടര ഒൻമ്പതൊക്കെ ആവുമ്പത്തേനും തിരിച്ച് വരണം

ആ ഉം ഉം അല്ല നമുക്കവിടുന്ന് എവിടുന്ന് ഇടയ്ക്ക് എവിടുന്നെങ്കിലും കഴിക്കണം കൊണ്ട് പോവുന്നത് ബുദ്ധമുട്ടല്ലേ നല്ല ഭക്ഷണം ഒന്നും അവിടെ കിട്ടാൻ സാധ്യത ഇല്ല അല്ലേ ഉം

ഉം കാന്തല്ലൂർ മരയൂർ തേക്കടിയും എല്ലായിടം എല്ലാം ഒന്ന് കണ്ടേ മൂന്നാറ് ഉം ആ പോരുന്ന വഴിക്ക് ആനച്ചാലോ ഒക്കെ ഇറങ്ങി മ്

ആനയൊക്കെ ഇറങ്ങുമോ അപ്പം ആ ഏത് വഴിയാ പോവുന്നത്

ഉം അഞ്ചാം മൈൽ വഴി ഇറങ്ങി പോകത്തില്ലേ ഉം ഉം ഉം വഴിയൊക്കെ നല്ലതല്ലേ അങ്ങോട്ട് പോവു

ആ ആ എൻ്റെ ഒരു എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ട്

ആ ആ ഏ ആട്ടെ ഈ ബെന്നിച്ചേട്ടന് അന്ന് വേറെ പ്രോഗ്രാമൊന്നും ഇല്ലല്ലോ ആ ഏ നമുക്ക് രാവിലെ പള്ളിയിൽ പള്ളിയിലൊക്കെ പോയിട്ടങ്ങ് പോകാം മ് മ് രാവിലെ ചെറിയ കാപ്പി വീട്ടിൽനിന്ന് കഴിച്ചിട്ടേ ആ മ് ന്ന എന്തോ വല്ലതും ഒക്കെ വാങ്ങിക്കുകയൊക്കെ ചെയ്യണം നമുക്ക് അവിടുന്നേ മ് അല്ല ഫ്രൂട്ട്സോ ഒക്കെ വാങ്ങിക്കാം പച്ചക്കറികളൊക്കെ എന്നാൽ ഓക്കെ ആ ഓക്കെ ആ എന്നാൽ പറഞ്ഞ പോലെ എല്ലാം മ്